വെള്ളം ആവശ്യമുള്ള ആ ആവശ്യമുള്ള ആവശ്യങ്ങൾ എന്നു പറഞ്ഞാൽ വെള്ളം കൊണ്ടുള്ള ഇല്ലാത്ത ഒരു പരിപാടിയില്ല എല്ലാറ്റിനും ഇപ്പം നമ്മൾ ബാത് റൂം പോകുകയാണെങ്കിൽ തന്നെ വെള്ളം വേണം പിന്നെ കുളിക്കുക അലക്കുക പാത്രം കഴുകുക അങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കാനും അങ്ങനത്തെ ഉള്ള ആവശ്യങ്ങൾക്ക് ഒക്കെ വെള്ളമാണ് വെള്ളം വെള്ളത്തെ വെള്ളം വേണം വെള്ളമില്ലെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ തന്നെ കഴിയി കഴിയില്ല ഈ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അരിയും അങ്ങനെയുള്ള പച്ചക്കറി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ വെള്ളം ഒരുപാട് ആവശ്യമാണ് വെള്ളം നന്നായി നനച്ചു കൊടുത്താൽ മാത്രമേ ഈ സാധനങ്ങളൊക്കെ ഈ പച്ചക്കറിയും അരികളും നന്നായിട്ട് ഉണ്ടാ പാ ഉണ്ടാകുകയുള്ളൂ എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം വേണം ദാഹിച്ചാലും വെള്ളം വേണം ദാഹിച്ചാലും വെള്ളം വേണം കുടിക്കണമെങ്കിൽ വെള്ളം വേണം ഫുഡ് ഉണ്ടാക്കണമെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വെള്ളം വേണം വെള്ളം ഇല്ലാത്ത ആവശ്യങ്ങൾ വളരെ കുറവാണ് എന്നാലും എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിലും എന്ത് വലിയ ആവശ്യങ്ങൾക്കാണെങ്കിലും വെള്ളം വേണം വെള്ളമില്ലാതെ ഒരു കാര്യവും നടത്തു ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്